ആ ഞാന് കരിമര് ചാലിൽ ഫിഷ് സ്റ്റോൾ ആൻ്റ് മീറ്റ് സ്റ്റോളില്നിന്നായിരുന്നു മീൻ ഇന്നെല്ലാ തരം മീനും ഉണ്ട് ഫ്രഷ് അയിലയുണ്ട് മത്തിയുണ്ട് ആ കേരയുണ്ട് ആവോലിയുണ്ട് കേരയ്ക്ക് കിലോ ഇരുന്നൂറ്റിയന്പതു രൂപ ആ വെള്ള കേര വെള്ള കേര ഫ്രെഷ് ഐറ്റമാണ് മുറിച്ചുതരുന്ന ആളിന്ന് ലീവാണ് എങ്കിലും നൊക്കട്ടെ കെട്ടോ ട്രൈ ചെയ്യാം ആ അതെ ഇവിടുന്ന് തന്നെ ആയിരുന്നോ മേടിച്ചത് നിങ്ങള് ഞങ്ങള് സാധാരണ ഫ്രെഷ് മീനൊക്കെ ആണല്ലോ നമ്മള് കൊടുക്കാറുള്ളത് അതുകൊണ്ട് ചോദിച്ചതാണ് ഞങ്ങളുടെ ഫിഷ് സ്റ്റോളില്നിന്നു മേടിച്ചവർക്ക് ഇതുവരെ അങ്ങനെയൊരു കമ്പ്ലൈൻ്റ് ഞങ്ങളുടെ ഭാഗത്തുനിന്നു കിട്ടിയിട്ടേ ഇല്ലല്ലോ ഇതാദ്യാമായിട്ടാണ് ഇങ്ങനെയൊരു കംപ്ലയിൻ്റ് കിട്ടുന്നത് ഞങ്ങള് ഇനിമുതല് ശ്രദ്ധിച്ചോളാവേ

അതെ ആ സോറിയേ നിങ്ങള് സ്ഥിരം കസ്റ്റമറായിട്ടും ഞങ്ങൾക്കടെ ഭാഗത്തുനിന്ന് അങ്ങനൊരു തെറ്റ് സംഭവിച്ചപ്പോള് ഇനി ഞങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കാം ആ ഉണ്ടല്ലോ നിങ്ങളുടെ വീട് ഇവിടെ അടുത്ത് എങ്ങാനുമാണോ എവിടെ ആ പുതിയ വീടാണോ ആ മനസ്സിലായി മനസ്സിലായി ആ അറിയാം അറിയാം ആ കൊടുത്തു വിടാം പിന്നെ വേറെ എന്തെങ്കിലും വേണോ ബീഫൊക്കെയുണ്ട് എപ്പോഴായിരിക്കും ആ സംഭവമൊക്കെ ഉണ്ട് എല്ലാ ഇറച്ചികളും സ്റ്റോക്കുണ്ട് നമ്മുടെ ഇവിടെ അങ്ങനെ ഒരു കംപ്ലയിൻ്റ് ഇതു വരെ കിട്ടിയിട്ടേയില്ല ആ ഞങ്ങള്ക്ക് ഗൂഗിൾ പേയുണ്ട് ഗൂഗിൾ നമ്പറിലോട്ട് സെൻഡെയ്താലും മതി അപ്പോള് കൊഴുവയുണ്ട് കുറച്ചേ ഉള്ളേ ആ മുഴുത്ത കൊഴുവ കാണാനും നല്ല കൊഴുവയാണ് ആ ഉവ്വ തന്നേക്കാം തന്നേക്കാം പിന്നെ വേറെ എന്തെങ്കിലും എല്ലാ മീനും വേണം എല്ലാ ഇറച്ചിയും കൂടെ ആ മീൻ മാത്രം ആ നല്ല മീനാണ് ഫ്രഷ് ഇല്ലയില്ല അങ്ങനെ ഇനി ഉണ്ടാവുകയില്ല ഞാൻ ശ്രദ്ധിച്ചോളാം ഞാനാണ് ഇതിൻ്റെ ഓണേറെ അന്നാരെങ്കിലും നമ്മുടെ പിള്ളേരാരെങ്കിലും ആയിരിക്കും ഇരുന്നതേ അപ്പോഴവരത്ര പുതിയൊരു പയ്യൻ വന്നായിരുന്നു അവനൊരു ചെറിയ കമ്പ്ലൈൻ്റ് കിട്ടിയിട്ട് ഞങ്ങള് പറഞ്ഞു വിടുകയും ചെയ്തു ഇനി അങ്ങനെയുള്ള കാര്യം ഞങ്ങള് ശ്രദ്ധിക്കാം ആ ഭയങ്കര ബുദ്ധിമുട്ടാണ് ആ ആ ഒ അതിനു നിങ്ങളെ എ കാര്യത്തിലും ഞങ്ങള് വളരെ ശ്രദ്ധിക്കുന്നതാണ് ഞങ്ങള് അങ്ങനെ ആ വീട്ടിലെത്തിക്കാം എത്തിക്കാം ആ പുതിയ വീടെന്നു പറഞ്ഞപ്പോള് എനിക്കു മനസ്സിലായി നെല്ലിക്കുന്നേൽ അല്ലേ ആ പഴയ നമ്മുടെയാ ലോക്കൽ സെക്രട്ടറിയുട വീടിൻ്റെ ഓപ്പോസിറ്റ് ഉള്ളതല്ലേ ആ ഫ്രഷ് തന്നുവിട്ടേക്കാം നമ്മള് കാര്യം ഏറ്റാൽ ഏറ്റതുപോലെ ചെയ്തു തരും ആ ഇനിയിപ്പോള് നിങ്ങള് വേറൊരിടത്തും ഹോം ഡെലിവറിക്കൊന്നും വിളിക്കേണ്ട നമ്മുടേത് അത്ര പേരുകേട്ട സ്റ്റോറാണ് അപ്പോള് എന്തു കാര്യത്തിനും വിളിച്ചാല് മതി ഓക്കെ

ആ മതി മതി എന്ത് കംപ്ലെയിൻ്റുണ്ടെങ്കിലും നിങ്ങള്ക്ക് കംപ്ലെയിൻ്റ് ഉണ്ടെങ്കില് തിരിച്ചുവിട്ടേരെ കേട്ടോ കാലൊക്കെ ഉണ്ട് കാർഡൊക്കെയുണ്ട് എല്ലാം ഉണ്ട് വിളിക്കാം ആയിക്കോട്ടെ കൊടുത്തുവിടാം ആ എല്ലാം ഫ്രെഷാണ് നമ്മള് കൂടുതലും അവിടെ ഞങ്ങള് നേരിട്ടു പോയി ഞങ്ങള്ക്കവിടെ ഓരു ഫിഷിങ് യൂണിറ്റുണ്ടേ നമ്മളവിടുന്ന് നേരിട്ടാണെല്ലാം എടുക്കുന്നത് കാര്യങ്ങള് അപ്പോള് നമുക്ക് എന്തെങ്കിലും ഒരു ഡിലേ ഉണ്ടായാൽ ചിലപ്പോള് കൊറച്ചൊക്കെയേ വരികയുള്ളൂ നമ്മുടെ മീനാവുമ്പോൾ നമ്മളത്ര ഫ്രെഷ് നമ്മുടെ അടുത്തൊന്നും കടലില്ലാത്തതുകൊണ്ടേ നമ്മുടെ വൈപ്പിൻ ഭാഗത്തുനിന്നൊക്കെയാണ് മീനെടുക്കുന്നത് ഞങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കാറുണ്ട് നമ്മുടെ ഫിഷിങ്ങുകാരുടെ കയ്യില്നിന്ന് ഡെയിലി എടുക്കുന്നവരുടെ കയ്യില്നിന്ന് എടുക്കാനൊക്കെ ശ്രദ്ധിക്കാറുണ്ട് എന്തെങ്കിലുമൊക്കെ വീഴ്ച പറ്റിയിട്ടുണ്ടെങ്കില് നമുക്കതു നേരെയാക്കാം കംപ്ലയിൻ്റുകളെല്ലാം ശരിയാക്കാം ആ ബില്ലും കൂടെ കൊടുത്തുവിട്ടേക്കാം ആ ആ